ആദ്യമൊരു ചിരട്ടയെടുക്കുക ചിരട്ടയെടുത്തിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്ത് മൂന്നു തുളയിടുക മൂന്നു തുളയിട്ടിട്ട് താഴെവരുന്ന മൂന്നു ഭാഗവും മൂന്നു ഭാഗത്തിൽ രണ്ടു ഭാഗത്തിൽ തുളയിടുക വെള്ളം പോകാന്വേണ്ടിയിട്ട് ഒരു പൂച്ചട്ടിയാണു നിർമ്മിച്ചത് ഞാൻ കുറച്ചു നല്ല മണ്ണെടുക്കുക കുറച്ച് ചാണകത്തിൽ കലർത്തിയിട്ട് ആ മണ്ണെടുത്തിട്ട് ചിരട്ടയിലിട്ടുകൊടുക്കുക രണ്ടുമൂന്നു നല്ല പൂച്ചെടിയുടെ വിത്തുകൾ അതില് വിതറിക്കൊടുക്കുക വിതറിക്കൊടുത്ത് ഇടയ്ക്കിടയ്ക്കു നനക്കുകയും ചെയ്യണം കയറതിൻ്റെ ചുറ്റിലും കെട്ടുക കയര് ചുറ്റിക്കെട്ടി വീടിൻ്റെ ബെർത്തിൻ്റെ മുകളില് വല്ലതും അല്ലെങ്കിൽ വല്ല ആണിയടിച്ച സ്ഥലത്തോ തൂക്കിയിടുക വീട്ടിന്റുള്ളിൽ കൊടുക്കാത്തതാണു നല്ലത് പുറത്തുവച്ചത് ഏറ്റവും നല്ലതാണ് പുറത്തുവയ്ക്കുമ്പോൾ വളരെയധികം കാറ്റും കിട്ടും അതിനു കുറേ വെളിച്ചവും കിട്ടും നല്ല കായയിടും നല്ല പൂവായി തളിർക്കുകയും ചെയ്യും